മൊബൈൽ ഫോൺ ഇതിനെക്കുറിച്ച് പറയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞാൽ പണ്ടുള്ള മൊബൈൽ ഫോന്ന് വെച്ചാൽ പഴയ മൊബൈൽ ഫോന്ന് അതായത് മൊബൈൽ ഫോന്ന് വെച്ചാൽ അതിൽ സംസാരിക്കാമ്മാത്രം വേണ്ടീട്ടുള്ള സാധനം എന്ന രീതിയിലാണ് മൊബൈൽ ഫോൺ യൂസ്സാക്കിക്കോണ്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ മാറി കുറെ കാര്യങ്ങൾ കുറെ സംഭവങ്ങൾ നടന്നു രണ്ടായിരത്തിയഞ്ചിലെന്നു മൊബൈൽ ഫോൺ വന്ന സമയത്ത് അതിനൊരു ഭയങ്കര സംഭവം ആയിരുന്നു മൊബൈൽ ഫോന്ന് വെച്ചാൽ സംസാരിക്കാൻ വേണ്ടിട്ട് മാത്രം കീപ്പാഡ് വെച്ച കുറെ മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട് ആദ്യം വന്ന മൊബൈൽ ഫോന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ ഉള്ള സമയത്ത്ന്ന് വെച്ചാൽ നോകിയാണ് നോക്കിയാ ഭയങ്കര സംഭവമായിരുന്നു മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ചാലും പാറക്ക് വലിച്ചെറിഞ്ഞാലും പൊട്ടാത്ത ഒരു സംഭവമായിരുന്നു നോക്കിയ മൊബൈൽ ഫോൺ ഇത് ഭയങ്കരൊരു സംഭവമായിരുന്നു അതേപോലെ പറയാണെങ്കിൽ നോക്കിയാ വന്ന സമയത്ത് അതിനെ കോമ്പറ്റേറ്റീവായിട്ട് മറ്റൊരു മൊബൈൽ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അതിനെ പേരറിയില്ല പക്ഷേ നോക്കിയായാണ് ഏറ്റോം പോപ്പുലറും ഏറ്റോം വലിയ സംഭവമായിട്ട് മാറിയ ഒരു മൊബൈൽ ഫോൺ നോക്കിയാ ഉള്ള സമയത്ത് ഉള്ള സിമ്മെന്ന് വെച്ചാൽ ബീയെസ്സെന്നെലാണ് അത് എല്ലാ സമയത്തും എല്ലാരുക്കും കിട്ടത്തില്ല അതാണ് അതിന്റൊരു കാര്യമെന്നു വെച്ചാൽ പല സമയത്തും ബീയെസ്സെന്നൽ സിമ്മുണ്ടായിരുന്നെങ്കിലും കനക്ഷൻ കിട്ടാതെ ഹാലോ ഹാലോ ഹാലോ അങ്ങനെ വായി തൊള്ള തുറന്ന് സൗണ്ടെടുത്ത് സംസാരിക്കുന്ന ആ ഒരു പ്രവണത കുറെ സമകാ കുറെ സലങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെത്തൊരു സാധനമാണ് നോക്കിയാ ശരിക്കൊരു സാധനമാണ് നോക്കിയ പിന്നെ നോക്കിയ ഉള്ള സമയത്തും ആ മൊബൈൽ ഫോൺ ഉള്ള സമയത്ത് അതാണ് രാജാവ് എന്ന് പറയുന്ന് അത് കഴിഞ്ഞിട്ട് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം വിളിക്കാവ്വേണ്ടീട്ട് മാത്രം ഉപയോഗിച്ച മൊബൈൽ ഫോൺ പിന്നെ കളിക്കാൻ വേണ്ടീട്ടും അതിൽ പറ്റി പിന്നെ മെസ്സേജിങ് അതും വന്നു അങ്ങനെ കുറെ ചെറിയ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു ആ സെറിയ മൊബൈൽ തൊട്ട് ഇങ്ങ് ഇപ്പോൾ കാണുന്ന ഇപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ ഒരു മാറ്റൊന്നുവെച്ചാൽ ഒരു സ്മാട്ട് ഫോൺ സ്മാട്ട് ഫോണിൽ ഇല്ലാത്തകാര്യങ്ങളില്ല ഇപ്പോൾ അ സ്മാട്ട് ഫോൺ വരുന്നതിന് മുൻപ് നോക്കിയാ ഉണ്ടായിരുന്നു പക്ഷേ നോക്കിയ ഇങ്ങനെ ഇവലൂഷൻ വന്ന് വന്ന് സ്മാട്ട് ഫോണിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്തു അതേപോലെയാണ് സിമ്മ് ബിഎസ്സെന്നൽ വന്നു പിന്നെ ഐഡിയ വന്നു ഐഡിയ ക്യാൻ ചെയ്ഞ്ച് യുവർ ലൈഫ് അങ്ങനെയാണ് അതിൻ്റെ ടാഗ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കാര്യങ്ങൾ വന്നു സംഭവങ്ങൾ നടന്നു അ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ന്ന് വെച്ചാൽ അതിൽ അവർ കാറ്റിയ കാട്ടിയ ഒരു ആട്സ് എന്ന് വെച്ചാൽ ആ രീതിയിലായിരുന്നു ഇപ്പോഴും അത് അത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ആഡും ഇതുവരെ വന്നിട്ടില്ല എ ആർ റഹ്മാൻ്റെ ആ ഒരു റിങ്ടോണും വെച്ചിട്ടുള്ള ആ ഒരു ഒരു എന്താപറയാ ഒരു നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു സാധനവാണ് ഈ ഐഡിയാന്നു വെച്ചാൽ അതൊരു വലിയൊരു റവലൂഷനായിരുന്നു ആ സമയത്ത് ഇപ്പോഴുവതേ ആ ഒരു റിങ്ടോൺ കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ വരുന്ന ഒരു സന്തോഷം അത്രതന്നെയാന് ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അത് കുറെ സൂപ്പർ സ്റ്റാസ്സും സിനിമാ സ്റ്റാഴ്സ്സും വന്നിട്ട് കാണിച്ച ഒരു ഐഡിയ പറഞ്ഞ ഒരൂ സിമ്മ് ഒരുരു വലിയ റവലൂഷൻ ആയിരുന്നു പിന്നെ ഇ പണ്ടത്തെ സ്മ മൊബൈൽ ഫോൺ ഇപ്പോഴത്തെ മൊബൈൽ ഫോണെന്ന് വെച്ചാൽ പണ്ടത്തേക്കാൾ എത്രയോ ഫീച്ചേസ്സുള്ള സ്മാട്ട് ഫോൺസ്സാണ് ഇപ്പോൾ കൈയ്യിലുള്ളത് ഇപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം സംസാരിക്കാം കോൺഫെറൻസ് ചെയ്യാം കോൺഫെറൻസ് നമുക്ക് വിളിക്കുമ്പോൾ ചെയ്യാം പക്ഷേ വീഡിയോ മുഖം മുഖം കണ്ടിട്ട് ഒരു സംസാരിക്കാൻ പറ്റുന്ന വെച്ചാൽ അതൊരു വലിയ കാര്യവാണ് അതൊരു വലിയ കാര്യം തന്നെ പിന്നെ ഞാൻ യൂസ്സാക്കുന്ന മൊബൈൽ ഫോന്ന് വെച്ചാൽ നാർസോ ഫിഫ്റ്റി എ അതിൽ ഞാൻ യൂസ്സാക്കുന്ന സിമ്മ് ജിയോ ആണ് ജിയോ അടുത്തകാലത്ത് വന്ന ഏറ്റവും വലിയ സംഭവവാണ് അതിൻ്റെ മുതലാളിയായ ആര് മുകേശ് അമ്പാനി അവർ തന്ന ഒരു റെവലൂഷൻ അതൊരു വല്ലാത്തൊരു റെവലൂഷ് റെവലൂഷനാണ് ഉണ്ടായിരുന്നു പിന്നെ ആദ്യം ഫ്രീയായിട്ട് തന്ന സിമ്മ് ഇപ്പോൾ പൈസ കൊ കൊട്ത്തിട്ട് മേടിക്കണ്ട അവസ്ഥയിലേക്ക് എത്തി സിമ്മ് മാത്രവല്ല ആദ്യം ഫ്രീ ആയിട്ട് പ്ലാനിങ് തന്നു ഒല്ലാ ഇന്ത്യ മൊത്തം ഫ്രീയായിട്ട് നെറ്റ്വർക്കും കിട്ടി ഇപ്പോൾ നെറ്റ്വർക്ക് കിട്ടുന്നില്ല ദയനീയ അവസ്ഥയാണ് അങ്ങനത്തെ ജിയോ സിമ്മിനുള്ളത് ജിയോ സിം ആദ്യം വരുന്ന സമയത്ത് നൂറ്റിമുപ്പത് ഇരുനൂറ് റീച്ചാർജ് ചെയ്യുന്നതൂടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാസത്തിനാണ് ഞാൻ റീച്ചാർജ് ചെയ്യുന്നത് റീചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ ഇര്നൂറ്റി അൻപത് ഇര്നൂറ്റി അറുപത് സംതിങ് അങ്ങനെയാണ് ഞാൻ സാധാരണ റീച്ചാർജ് ചെയ്യുന്നത് മുമ്പ് പൈസ കുറവായിരുന്നു ഇപ്പോൾ പൈസ കൂട്ടി അതേപോലെ സ്മാട്ട്ഫോൺസ്സിൽ വരുന്ന ഓരോരോ സംഭവങ്ങൾ നടന്നോണ്ടിണ്ട് ഇനിയും കുറെ മാറ്റങ്ങൾ വരാനുണ്ട് ഇനിയും അതേപോലെ ജിയോ പോലത്തന്നെ ജിയോക്ക് കോമ്പറ്റേറ്റീവായിട്ട് മറ്റൊരു സിമ്മും വരാൻ സാധ്യത ഉണ്ട് അതേപോലെ പണ്ട് ടൂ ജി ആണ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഏട്ടൻ പഠിക്കുന്ന സമയത്ത് ഏട്ടനെ റീച്ചാർജ് എന്ന് വെച്ചാൽ മാസത്തിന് അഞ്ഞൂറെമ്പിയാണ് ആലോചിക്കണം മാസത്തിന് അഞ്ഞൂറെമ്പീന്ന് വെച്ചാൽ ഒരു വീഡിയോ പോലും റെക്കോഡ് ചെയ്യാൻ പറ്റില്ല റെക്കോഡെന്ന് വെച്ചാൽ ഒരു വീഡിയോ റെക്കോഡോ ഒരു വീഡിയൊ കാണാനോ പറ്റില്ല യൂട്യൂബൊണ്ട് പക്ഷേ യൂട്യൂബ് യൂസ്സാക്കാൻ പറ്റുന്നില്ല കാരണം യൂട്യൂബ് യൂസാക്കിയാൽ ഉള്ള എമ്പിയും തീർന്നു പോകും ആ എ മ്പി കാത്ത് വെച്ച് വെച്ച് വെച്ച് വെച്ച് വെച്ച് വെച്ച് മെല്ലെ യൂസ്സാക്കണം അത്രയ്ക്ക് ദയനീയ അവസ്ഥയാണ് അഞ്ഞുറുവല്ല നൂറെമ്പിയാണ് സോറി മാറിപ്പോയി നൂറെമ്പിയാണ് ഒരു മാസത്തിന് അത് യൂസ്സാക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അങ്ങനല്ല ദിവസത്തിന് വൺ ജീ ബിയാണ് അത്രയും മാറ്റം വന്നിട്ടുണ്ട് ദിവസത്തിന് വൺ ജീ ബിയാണ് അതും ഏറ്റോം കുറവ് വിലക്കാണ് ദിവസത്തിന് ഒരു ജീ ബി ഒന്നര ജീ ബി രണ്ടര ജീ ബി അങ്ങനെ ആ രണ്ടര ജീ ബിപോലും നമുക്ക് ചില സമയത്ത് എന്താ പറയാ ചില സമയത്ത് നമുക്ക് യൂസാ പറ്റ്ന്നില്ല എന്ന് വെച്ചാൽ അത് പോര ഇനിയും വേണം എന്ന രീതിയിലാണ് ദേ റ്റു അങ്ങനെയാണിപ്പോൾ ടൂ ജി ഉള്ള സമയത്താണ് ഏട്ടൻ ഉണ്ടായിരുന്നത് ടൂ ജീന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആണ് അങ്ങനെ എഴഞ്ഞ് എഴഞ്ഞ് എഴഞ്ഞ് പോകുന്നതാണ് അതിൻ്റെ ഒരു രീതി പിന്നെ ത്രീ ജി വന്നു അതുകഴിഞ്ഞിട്ട് ഫോർ ജി വന്നു അതനമ്മളിപ്പോൾ ഉള്ളത് ഇനി വരുന്നതാണ് ഫൈ ജി അപ്പോൾ ഫൈ ജിക്കുള്ള പ്രത്യേകതാന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഫൈ ജി മൊബൈൽ ഫോൺന് പൈസ കൊടുക്ക്ല്ലന്നില്ല ഫൈ ജിക്ക് ഇൻ്റർനെറ്റ് ഫ്രീയാണ് അങ്ങനെ ഇപ്പോൾ ആ മൊബൈലിന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നെല്ലാം നോക്കണം